വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങൾ തമ്മിലുള്ള സഹകരണക്കുറവും ഏകോപനക്കുറവും കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട് അത് ഒരു വ്യക്തിയുടെ അവകാശാ അവകാശമാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റ് ഒരുപാട് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഫ്രീയായിട്ട് ഫുഡ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പിന്നെ ഗവൺമെൻറ്റ് കൊടുക്കുന്നുണ്ട് എങ്കിലും കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്നും വലിയ മോശമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ടവരാണെങ്കിൽ പഠിക്കും അത്രയേ ഉള്ളു ഇപ്പോൾ ഗവൺമെൻറ്റ് ടീച്ചർമാരൊക്കെ ആണെങ്കിൽ അവർ അവരുടെ പോർഷൻ എടുത്തിട്ട് പോകും കുട്ടികൾ പഠിച്ചാൽ പഠിക്കട്ടെ പഠിച്ചില്ലെങ്കിൽ പഠിക്കണ്ട ആ ഒരു മൈൻഡിലാണ് അവർ പോകുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ പിന്നെ മെയിൻ ആയിട്ടും മാതാപിതാക്കൾ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കാനുള്ള മാക്സിമം അവരെ പഠിപ്പിക്കാൻ നോക്കുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുക അതാണ് ഏറ്റവും കൂടുതലായിട്ട് മാതാ പിതാക്കളും കൂടി ശ്രദ്ധിക്കണം എല്ലാം ടീച്ചറിൻ്റെ തലയിൽ തന്നെ ഇടാൻ പാടില്ല നമ്മൾ മാതാ പിതാക്കൾ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ഉള്ള കാര്യങ്ങളും അതായത് കുട്ടികളുടെ മുന്നോട്ടുള്ള പഠിത്തം ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ